ഞങ്ങളുടെ ഗ്രാമം ഇതിൻ്റെ നടുഭാഗത്ത് കൂടി വലിയൊരു മലയാണ് ഈ മലയുടെ താഴെഭാഗവും താഴെഭാഗത്ത് ആണ് അധികവും ആളുകൾ താമസിക്കുന്നത് ഈ മലയുടെ മോള് ഭാഗത്ത് മുഴുവൻ പാറകളാണ് ഈ ഇങ്ങനെയുള്ള ഈ പ്രദേശത്ത് ജലസേചന സൗകര്യം ജലസൗ സ്രോതസ്സുകൾ വളരെ കുറവാണ് താഴെഭാഗത്ത് പാടംങ്ങൾ കുറച്ച് പാടങ്ങളുണ്ട് ആ ആ പാടത്തിൻ്റെ അവിടെയാണ് അൽപം ജലസേചന സൗകര്യമുള്ളത് പിന്നെ ഈ ഈ മോൾ ഭാഗത്ത് താമസിക്കുന്ന ആളുകൾക്ക് വെള്ളത്തിന് വളരെയേറെ ബുദ്ധിമുട്ടാണ് അനുഭവപ്പെടുന്നത് പലപ്പോഴും അവർ വെള്ളം ഈ മറ്റ് ഗവൺ സർക്കാരിൽ നിന്നുള്ള പദ്ധതികൾ പ്രകാരം ഉള്ള പിന്നെ ജലനിധിയുടെ വെള്ളം ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ ചില അപൂർവ്വം ചിലർ കുഴൽക്കിണറുകളിൽ നിന്നും വെള്ളം ശേഖരിക്കുന്നു ചുരുക്കം ചിലർക്കൊക്കെ കിണറുകളുമുണ്ട് പൊതുവെ നോക്കുമ്പോഴ് ജലസേചനം വളരെ ജലത്തിൻ്റെ സ്രോതസ്സ് വളരെ കുറവായതുകൊണ്ട് കൃഷിക്ക് പര്യാപ്തമായ കൃഷികൾ ചെടികൾ നനയ്ക്കുന്നതിന് പര്യാപ്തമായിട്ടുള്ള വെള്ളം ലഭിക്കാത്ത സാഹചര്യമാണ് പലപ്പോഴും ഉള്ളത് ഈ ഇത് പിന്നെ കൃഷിയായി കൃഷികൾ പലതും ഇപ്പം പിന്നെ കുരുമുളക് അതുപോലെ കാപ്പി ജാതി പോലുള്ള കൃഷികൾ ഏലം ഇതുപോലുള്ള കൃഷികൾക്ക് പിന്നെ ചെയ്യുന്നതിന് പര്യാപ്തമായിട്ടുള്ള ജലസേചന സൗകര്യം വളരെ കുറവാണ് പൊതുവേ പിന്നെ അങ്ങനെയുള്ള ഒരു സാഹചര്യമാണുള്ളത് അതുകൊണ്ട് പിന്നെ വേനലാകുമ്പോഴ് പിന്നെ ഈ ഏലച്ചെടികളൊക്കെ പിന്നെ ഉണങ്ങി നശിച്ച് പോകുന്നു അതും പിന്നെ കാപ്പി ഉണങ്ങി കാപ്പി പോലും ഉണങ്ങി പോകുന്നു ജാതിയുടെ മുകളിലുള്ള ശിഖരങ്ങളൊക്കെ ഉണങ്ങി കരിഞ്ഞ് പോകുന്നു ഇതൊക്കെ എന്നാ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ വളരെ ബുദ്ധിമുട്ടാണ് ഈ സ്ഥലങ്ങളിലൊക്കെ കൃഷി ചെയ്യുന്നതിന് എന്നാൽ ഒരു കൊടും വര കഴിഞ്ഞ വർഷമാണങ്കിൽ കൊടും വരൾച്ചയായിരുന്നു ഒരുപാട് അത് പിന്നെ ഏലത്തോട്ടങ്ങൾ നശിച്ചു പോവുകയുണ്ടായി അതുപോലെ കുരുമുളക് ചെടികളൊക്കെ പിന്നെ നശിച്ചു പോയിട്ടുണ്ട് ഇങ്ങനെയുള്ള പിന്നെ വളരെ പരിമിതമായിട്ടുള്ള സൗകര്യങ്ങളാണ് ഈ പിന്നെ ഇവിടെയുള്ള ഗവൺമെൻ്റിൻ്റെ ഭാഗത്ത് നിന്നും പര്യാപ്തമായിട്ടുള്ള ഒരു ജലസേചനത്തിനുള്ള സൗകര്യങ്ങൾ നൽകുന്നില്ല അഥവാ നൽകുന്നത് പോലും വല്ലപ്പോഴുമൊക്കെ ലഭിക്കുന്ന വെള്ളം മാത്രമേത് കുടിവെള്ളത്തിനുള്ള സൗകര്യം മാത്രമേ ലഭിക്കുന്നുള്ളൂ ജലസേചനത്തിനുള്ള സൗകര്യം ലഭിക്കുന്നില്ല ചില ഏരിയായിലക്കെ കുഴൽക്കിണറ് താത്തി കഴിഞ്ഞാൽ വെള്ളം നമുക്ക് കിട്ടാതെ പോകുന്ന സാഹചര്യമുണ്ട് പലരും കുഴൽകിണറിന് പിന്നെ മുന്നൂറും നാഞ്ഞൂറുമൊക്കെ അടിയിൽ താഴ്ത്തിയിട്ടും ജലം കിട്ടാതെ വേസ്റ്റ് ആയിപ്പോയ സാഹചര്യങ്ങളുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രദേശമാണ് പൊതുവേ ഈ ഈ ഒരു ഗ്രാമം വെള്ളത്തിന് വളരെയേറെ ദൗർലഭ്യം നേരിടുന്നുണ്ട് കേന്ദ്ര ഗവൺമെൻ്റിൻ്റെ പിന്നെ മതിയായിട്ടുള്ള സപ്പോർട്ടോട് കൂടി ജലം ലഭ്യമാക്കാനുള്ള സ്കീമുകള് ഈ ജലം മിഷൻ പോലുള്ള പദ്ധതികൾ നടപ്പിലാക്കിയാൽ അതുവഴി ജലം ഈ ഭൂമിക്ക് ലഭിക്കുകയും മതിയായ കൃഷികളൊക്കെ നടത്തുവാനും ഒക്കെ പിന്നെ സൗകര്യം ലഭിക്കുകയും ചെയ്യും ആവശ്യമായ ജലത്തിന് വേണ്ടിയിട്ടുള്ള ജലം ലഭിക്കാനുള്ള മതിയായിട്ടുള്ള സൗകര്യങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് പിന്നെ കൂടുതലായിട്ട് പിന്നെ ഈ കൃഷി ഇറക്കാനൊക്ക സാധിക്കുകയുള്ളൂ അത് ഇക്കാര്യത്തിൽ സംസ്ഥാനം ഗവൺമെൻ്റും പഞ്ചായത്തുകളുമൊക്കെ മുൻകയ്യെടുത്ത് കൂട്ടായ്മകളിലൂടെ കൂടുതൽ ജലം ലഭ്യമാക്കാനുള്ള സൗകര്യങ്ങളേർപ്പെടുത്തണം അതോടൊപ്പംതന്നെ ഈ കുഴൽക്കിണറുകൾ താത്താനോ അല്ലെ കിണറുകൾ സ്ഥാപിക്കാനോ ഒക്കെയുള്ള അതിന് വേണ്ടിയിട്ടുള്ള സബ്സിഡികൾ കോഫി ബോർഡോ അല്ലെങ്കിൽ ഏലം ബോർഡോ അല്ലെങ്കിൽ സ്പൈസസ് ബോർഡിൽനിന്നൊക്കെ ലഭ്യമാക്കാനുള്ള പിന്നെ നടപടികളാണ് സ്വീകരിക്കേണ്ടത്